ഇപ്പോൾ കൃഷി ചെയ്യുന്നവര് ഒരുപാടുണ്ട് ആൾക്കാർ കുറേ പേരുണ്ട് പക്ഷേ അവരുടെ കുടുംബത്തില് വേറെ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അച്ഛനും അമ്മമാര് അവരൊക്കെയാണ് കൂടുതലായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ബാക്കിയുള്ള ഇപ്പം മക്കള് മരുമക്കള് അങ്ങനത്തെ ഉള്ളവരൊന്നും കൃഷിയിലേക്ക് അധികം ഏർപ്പെടുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് എല്ലാവർക്കും മടിയാണ് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പൈസ ഇല്ലാണ്ട് പണിയെടുക്കുന്ന പോലെ ഒരു കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് അവര് വിചാരിക്കുന്നത് അപ്പോൾ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവര് ജീവിക്കുന്നുന്നുള്ള എന്ന ഒരു വിചാരമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വീട്ടുവളപ്പിലും അല്ല നമുക്ക് കടകളിൽ ഒക്കെ കിട്ടും അപ്പോൾ അതിന്മേൽ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒന്നുമില്ല അപ്പം അതിന് മെനക്കെടണ്ട അങ്ങനത്തെ പരുപാടിയൊന്നും വേണ്ട അപ്പോൾ അതൊക്കെയാണ് എല്ലാവരെയും ഒരു വിചാരം അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ അവരൊക്കെ ഒന്ന് പണിമുടക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തെ അന്നം തന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഏർപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമ്മള് നമ്മള് നല്ല രീതിയില് നമ്മുടെ വീട്ടുവളപ്പിലും കാര്യങ്ങളൊക്കെ പച്ചക്കറികളും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാ ഇപ്പോ നെല്ലൊക്കെ നല്ല രീതിയില് നമ്മള് വെക്കുവാണെങ്കിൽ നമ്മള് പുറത്തുനിന്ന് അരി മേടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട അപ്പം അതിനൊക്കെ നല്ല രീതിയിൽ എല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല